നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് തലമുറയും വളരുകയുള്ളു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി പൊരുതി നേടണം എങ്കിൽ വിദ്യാഭ്യാസം വേണം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം ആ കാര്യത്തിൽ മുൻപന്തിയിലാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന പല അനാചാരങ്ങളും അതുപോലെ തീണ്ടൽ തൊടീൽ ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആൾക്കാരിൽ നിന്ന് അത് മാഞ്ഞുപോയത് അത് മനസ്സിലാക്കുവാനുള്ള കഴിവ് നേടണം എങ്കിൽ ഓരോ കുട്ടിയും വിദ്യാഭ്യാസം നേടണം ഓരോത്തൻ്റെ അറിവ് എത്ര കാലം എന്നതിൽ അല്ല കാലം എന്നുള്ളതല്ല അവൻ മരണം വരെ അറിവ് നേടിക്കൊണ്ട് ഇരിക്കണം ഓരോരുത്തരുടെ അറിവുകൾ വ്യത്യസ്തമായിരിക്കും എങ്കിലും നമുക്കുള്ള അറിവുകളിൽ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുകയും അവരുടെ അറിവുകളിൽ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം പരസ്പരം സംസാരത്തിലും പ്രവർത്തിയിലുമാണ് അറിവുകൾ പങ്ക് വെയ്ക്കുന്നത് നമുക്ക് ഉള്ള അറിവുകൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള വിവരം നമുക്കും തിരിച്ച് കിട്ടും ആ അറിവുകൾ കിട്ടാൻ ഏറ്റവും പൊതു സമൂഹത്തിൽ ഉള്ള ഇടപെടൽ അത്യാവശ്യമാണ് അതുപോലെ സ്കൂൾ കുട്ടികൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാകുന്ന ഒരു കാലമായിരുന്നില്ല പണ്ട് പക്ഷേ എന്നാൽ ഇന്ന് ഇന്ന് ഒരു പരിധി വരെ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട് മാനേജ്മെൻറ്റ് സ്കൂളുകൾ അല്ലാതെ ഇന്ന് പബ്ലിക് സ്കൂളുകൾ ഗെവൺമെൻറ്റ് സ്കൂളുകൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് അവിടെ പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടും പക്ഷേ ഉയർന്ന പദവിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടണം എങ്കിൽ കൂടുതൽ പൈസകൾ മുടക്കേണ്ടി വരും എല്ലാവർക്കും ഇപ്പം മെറിറ്റടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം ലഭിക്കാൻ കഴിയില്ല എന്നാലും ഗെവൺമെൻറ്റാണ് ഒരു പരിധി വരെ അതിന് മുൻകൈയെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള അവസരം ഒരുക്കേണ്ടത് കാരണം മാനേജ്മെൻറ്റുകൾ പലപ്പോഴും നടത്തുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ സാമ്പത്തിക ലാഭത്തിനും കൂടെ വേണ്ടിയായിരിക്കും അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടോമില്ല വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്യില്ല അപ്പോൾ അതിന് പരിഹാരം കാണണം എന്ന് പൊതുവിദ്യാലയങ്ങൾ ഉയർന്ന് വരണം പൊതുവിദ്യാലയങ്ങൾ ഉയർന്ന് വരുമ്പോൾ നല്ല അധ്യാപകരെ നിയമിക്കണം അതുപോലെ അധ്യാപകർക്ക് മാന്യമായ ശമ്പളം കൊടുക്കയും അവരെ നല്ല വിദ്യാഭ്യാസത്തിന് അവരെ പ്രാപ്തരാക്കുകയും ഒരു ഇച്ഛാശക്തിയുള്ള ഭരണകൂടം അതിന് മുൻകൈ എടുക്കുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം